ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട് അതായത് നദികളും കാടുകളും മലകളൊക്കെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കാടുകളൊക്കെ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് നദികളൊക്കെ മലിനീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കൃഷിയിടങ്ങൾ കുറഞ്ഞു പോയി കൊണ്ടിക്കുകയാണ് മണ്ണ് മലിനമാക്കപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് പിന്നെ കാലാവസ്ഥ വ്യതിയാനം നല്ലപോലെ തന്നെ ബാധിക്കപ്പെട്ടിട്ടുണ്ട് മഴ മഴയ്ക്കും വെയിലിനും ഒന്നും കാലാവസ്ഥ സീസൺ അല്ലാതെ പെയ്തു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതിനാൽ തന്നെ ഭയങ്കരം ഒരു വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഇന്ത്യ ഇന്ന് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നോക്കി കാണുന്നത് ഇനിയും അത് തുടർന്നാൽ ഭയങ്കര വലിയ പ്രശ്നമായി മാറുമെന്ന് ഉറപ്പാണ് കൃഷിയിടങ്ങളിൽ ആയിക്കോട്ടെ ജൈവമല്ലാത്ത വളങ്ങളുടെ ഉപയോഗവും അതുപോലെ തന്നെ വിഷം അടങ്ങിയ കീടനാശിനിയുടെ ഉപയോഗം കാരണമാണ് മണ്ണും കൃഷിയിടങ്ങളൊക്കെ നശിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ വേസ്റ്റ് മാലിന്യവും തള്ളുന്നതും ഒരു കാരണമാണ് കടലിലൊക്കെ നശിപ്പിക്കാൻ